ഹലോ പറ അതെ പറയൂ ഓക്കെ എവിടേലും കാണിച്ചിരുന്നോ മരുന്ന് എന്തേലും കഴിച്ചിരുന്നോ നിങ്ങൾ നല്ല തലവേദന അല്ലേ ഓക്കെ എവിടുന്നേലും പുറത്തുന്ന് ഫുഡ്ഡ് എന്തേലും കഴിച്ചിരുന്നോ കഴിച്ചിട്ടുണ്ടോ എവിടുന്ന് ഫാസ്റ്റ് ഫുഡ്ഡ് ഹോട്ടലീന്നാണോ പുറത്തുന്നാണോ കഴിച്ചത് ഓക്കെ അപ്പം ഇന്ന് തൊട്ടല്ലേ തുടങ്ങിയത് ഓക്കെ അപ്പം വീട്ടിൽ പാരസിറ്റമോള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഒരു മൂന്ന് പാരസിറ്റമോൾ അത് മൂന്ന് നേരം കഴിക്കുക ഭക്ഷണത്തിന് ശേഷമേ കഴിക്കാവുള്ളൂ പാരസിറ്റമോള് കഴിച്ചിട്ട് കുറവ് ഉണ്ടോന്ന് നോക്കുക എന്നിട്ട് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റൽ വരെ വരണം നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം പിന്നെ യൂറിനും ടെസ്റ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ഇത് ഫുഡ് പോയ്സൺ ആണൊന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇഞ്ചക്ഷൻ ചെയ്തിട്ടെ ഞങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ ഭക്ഷണത്തിൻ്റെ ആയിരിക്കാം കാരണം ഫുഡ് പോയ്സൺ അടിച്ചിട്ട് വന്ന എന്തേലും ഇതായത് ആവാനാണ് സാധ്യത കൂടുതൽ അങ്ങനെയാണ് വരുവ പിന്നെ മഴ നനഞ്ഞതുകൊണ്ട് ചിലപ്പം വൈറൽ ഫീവർ ആവാനും ചാൻസ് ഉണ്ട് ബ്ലഡ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും അല്ലാണ്ട് വേറെ എന്തേലും ബുദ്ധിമുട്ട് ഉണ്ടോ ഉണ്ടല്ലേ ആ കോറോണയുടെ വാക്സിൻ ഒക്കെ എടുത്തായിരുന്നോ എടുത്തായിരുന്നല്ലേ ഉള്ളതല്ലേ

ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞപോലെ പാരസിറ്റമോളോന്ന് കഴിച്ചു നോക്കൂ കുറവുണ്ടെങ്കിൽ വരണ്ട അല്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റൽ വരെ വന്നാൽ മതി